അതെ അതെ ആരാണ് സംസാരിക്കുന്നത്

ഓക്കെ പറഞ്ഞോളൂ ഓക്കെ പറയുന്നു പറ പറഞ്ഞോളൂ അതെ അതെ ഞാനും ക ഞാനും കണ്ടിരുന്നു അതെ അതെ അതെ അതെ എല്ലാവരുടെയും മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളീയിടെയായി പത്രത്തിലും ടി വിയിലും എല്ലാമായിട്ട് കണ്ടത് അതെ അതെ അതെ പറഞ്ഞോളൂ അതെ അതെ അതെ അതെ മാതാപിതാക്കൾ അതെ അതെ അതെ അതെ അതെ അതെ അതെ നമ്മളും ഒത്തിരി സുരക്ഷാ മാർഗങ്ങൾ ഗവൺമെൻറ്റ് വഴി പ്രാവർത്തികം ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്നല്ല പലതും നമ്മൾ പ്രാവർത്തികം ആക്കുന്നുമുണ്ട് അതും ഒരു പരിധി വരെയാണ് പക്ഷെ എന്നിരുന്നാലും മാതാപിതാക്കളും കുട്ടികളെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളിപ്പം പൊതു സമൂഹത്തിൽ പല പല കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികൾ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയെന്ന് പറഞ്ഞാലും കൂ കുട്ടികളെങ്ങോട്ട് പോകുന്നു എവിടെ നിൽക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്ന് എപ്പോഴും മാതാപിതാക്കളും കുട്ടികളുടെ നേരെ ഒരു കണ്ണ് വേണം സ്കൂളിൽ വിട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ ഏന ടീച്ചേഴ്സിനോടൊക്കെയാണെങ്കിൽ ഒന്ന് പറഞ്ഞിരിക്കണം എൻ്റെ കുട്ടീനെ ഞാനല്ലാതെ വേറൊരാൾ വന്നാൽ പറഞ്ഞയയ്ക്കരുതെന്നും കുട്ടിയൊന്ന് പുറത്തോട്ട് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ നമ്മളായിട്ട് തന്നെ ടീച്ചേഴ്സിനോട് പറയണം അതെ അല്ലാതെ ന അതെ നമ്മളിപ്പോൾ കുറച്ച് ആ എ പേരൻറ്റ്സിന് ന്ന പേരൻറ്റ്സിന് അതെ അതെ ഞങ്ങളിപ്പം ഉള്ളത് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്കൂൾ തോറും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും പിന്നെ എന്തെന്ന് വെച്ചാൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോയില്ല പെൺകുട്ടികൾ പെൺകുട്ടികളുടേയും ആൺകുട്ടികളുടേയും മാതാപിതാക്കൾക്ക് നമ്മളൊരു പ്രത്യേക കൗൺസിലിങ്ങ് അതായത് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെയൊരു പ ഡിസ്കഷൻ നടത്തിയിരുന്നു ഇന്നപോലെ പോലെ കൗൺസിൽ ഓർഗന കൗൺസിലിങ്ങ് ഓർഗനൈസ് ചെയ്യണമെന്ന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് പറയാൻ ആലോചിക്കുന്നുണ്ട് അത് അതൊക്കെ നമ്മളിപ്പം മീറ്റ് വെച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവം വെച്ചെന്ന് പറഞ്ഞാലും നമ്മളിപ്പം നമ്മുടെ കുട്ടിയുടെ സുരക്ഷ നമ്മളുടെ കയ്യിലാണ് ഒരെൺമ്പത് ശതമാനമെന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണം കുട്ടീനെ നമ്മൾ ന ആ അതെ അതെ അതെന്ന് അതെ മനസ്സിലാകും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി ആലോചന നടത്തിവരുന്നുണ്ട് കുട്ടികൾക്കിപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പം കുട്ടികളുടെയൊരു പ കാര്യം പറയുവാണെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്പെഷ്യൽ പോലീസ് മീൻസ് അതായതൊരു ടീമിനെത്തന്നെ നമ്മൾ എന്താണ് പറയുക ആ വയ്ക്കുന്നുണ്ട് അതായത് ഓരോ കു സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ അതിന് അതിനോടനുബന്ധിച്ചൊരു കൂ പോലീസിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയെങ്കിലും നമ്മൾ ഓരോ സ്കൂളിൻ്റെ അടുത്ത് വയ്ക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ രാവിലെ പത്ത് മണി പത്തല്ല ഒമ്പതര തൊട്ടുള്ള സമയം തൊട്ട് നാലര വരെ കണ്ടിന്യൂസായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളയൊരു സുരക്ഷ ആ ഒരു ഇതാണ് നമ്മളുദ്ദേശിക്കുന്നത് അതെ അതെ അതെ ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി ആ വേറെ ഓക്കെ ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലും ഇതുപോലെ ആസൂത്രണം എന്തെങ്കിലും എന്നല്ല ഞങ്ങളിപ്പം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു മാസത്തിനകം ഇങ്ങനെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞത് പോലെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് നമ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിയപ്പം ഓ അത് ഞങ്ങൾ നമ്മൾ സ്കൂളിൽ അനൗൺസ് ചെയ്തേക്കാം കേട്ടോ സ്കൂളിൽ പറഞ്ഞേക്കാം കുട്ടികളോട് പൊതുവായിട്ടൊന്ന് പറഞ്ഞേക്കാൻ ശരിയെന്നാൽ ഓക്കെയെന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ